ആ ഓക്കെ മാം എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത് ഓക്കെ ആ ടൈം ആവുമ്പോഴത്തേന് ഞങ്ങൾ കറക്റ്റ് എത്തിക്കാം ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഓക്കെ അഞ്ചോ മലബാർ ബിരിയാണി മാം പൊരിച്ച ബിരിയാണിയുണ്ട് പൊരി പൊരിക്കാത്ത ബിരിയാണിയുണ്ട് ഏതാണ് മാം വേണ്ടത് ഓക്കെ ഓക്കെ എന്നാൽ പൊരിച്ച കോഴി ബിരിയാണി അഞ്ച് അഞ്ചെണ്ണം വേണ്ടല്ലേ ഓക്കെ അഞ്ചാൾക്ക് ഓക്കെ ആ പുട്ടും കടലക്കറിയും വേണം പുട്ട് എത്ര വേണം ഒരു കുറ്റി മതി മതി ഓക്കെ ഓക്കെ മാം ആ ഇടിയപ്പം ഉണ്ട് ആ ഇടിയപ്പത്തിന് കറി ഇവിടുന്ന് കൊടുക്ക് കൊടുക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് കൊടുക്കുന്നത് ഓക്കെ അതെ ആ മുട്ടക്കറിയുണ്ട് പക്ഷേ ഞങ്ങൾ അധികം ഇടിയപ്പത്തിൻ്റെ കൂടെ കൊടുക്കൽ ഗ്രീൻ പീസ് ആണ് മാം മുട്ടക്കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടക്കറിയും പറയാം ഓക്കെ ഓക്കെ മുട്ടക്കറി മാം നല്ല ടേസ്റ്റ് ആ ഓക്കെ ഓ ആ ഓക്കെ മാം സ്പൈസി ഒലിപ്പാവിഷ്ടമാണോ അതോ സ്പൈസി കുറച്ചിട്ടുണ്ടാക്കണോ പറ്റില്ല ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ പിന്നെ ഷു ഇതുണ്ടോ പ്രഷർ അധികം ഉണ്ടോ ഉപ്പ് സോൾട്ട് അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കണോ അല്ല വല്യുപ്പാൻ്റെ കേസ് വല്യുപ്പാൻ്റെ കേസ് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാറില്ല സാധാരണ കസ്റ്റമറിനോട് പക്ഷേ വല്യുപ്പാൻ്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വല്യുപ്പാനെ സന്തോഷിപ്പിക്കണം അവരും കഴിക്കുമ്പോൾ വയർ നിറഞ്ഞ് കഴിക്കണം അപ്പോൾ വല്യുപ്പാന് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കാൻ ഓക്കെ എരിവ് എരിവ് കുറയ്ക്കാം ഓക്കെ ഓക്കെ മാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ മാം ആ ഇവിടെ കുടിക്കാൻ ജ്യൂസ് ഉണ്ട് ഫ്രഷ് ജ്യൂസ് ഉണ്ട് പിന്നെ ഷേക്ക് ഉണ്ട് ആ മാം ഏതാണ് ഫ്രഷ് ജ്യൂസ് ഏത് ഓറഞ്ച് ഉണ്ട് ഓക്കെ ഓറഞ്ച് ഉം പിന്നെ ഒരു ഒരെണ്ണം മതിയല്ലേ വേണ്ട ഓക്കെ ഓക്കെ ഓക്കെ കോൾഡ് ബൂസ്റ്റ് കോൾഡ് കോഫി ഹോട്ട് കോഫി അങ്ങനെ എന്തെങ്കിലും വേണോ വേണ്ട ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നോമ്പ് തുറക്കാനുള്ള നേരത്ത് ഒരു ഫ്രഷ് ജ്യൂസും അഞ്ച് ബിരിയാണിയും പിന്നെ എന്താണ് മാം പറഞ്ഞത് പുട്ടും കടലക്കറിയും ഇടിയപ്പം ഗ്രീൻ പീസ് കറിയും ഓക്കെ ആ മുട്ടക്കറി മുട്ടക്കറി ഓക്കെ ഓക്കെ ടൈം മാം ജി പേ ഉണ്ടെങ്കിൽ ജി പേയിൽ ചെയ്യാം അല്ലെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അവിടെ വരും അപ്പം അവരുടെ കയ്യിൽ കൊടുത്താലും മതി ഡെലിവറി ബോയ് വരും ഓക്കെ ഓക്കെ ഓക്കെ മാം ശരി